ഇപ്പൊൾ ഞാൻ പറയുകാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ശക്തിന്ന് ഒക്കെ പറയുവാണെങ്കിൽ എന്നെ എന്നെ പിന്തുണക്കുന്ന എൻ്റെ കുടുംബക്കാരാണ് അതായത് എന്താ പറയുക എൻ്റെ ബന്ധുമിത്രാദികൾ തന്നെയാണ് എൻ്റെ ശക്തി കാരണം അവർ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവര് അപ്പപ്പോ സാധിച്ചുതരുകയും ചെയ്യുന്ന കൊണ്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് എൻ്റെ കുടുംബത്തിലുള്ളവര് അപ്പോൾ അവരെ തന്നെയാണ് എന്താ പറയുക എൻ്റെയൊരു ശക്തിയായിട്ട് ഞാൻ അവരെ തന്നെയാണ് കാണുന്നത് പിന്നെ എൻ്റെ അച്ഛനായാലും അമ്മയായാലും അവര് എന്താ പറയുക എന്നെ ഒരു എന്താ പറയുക എന്നെ ഒരു വലിയ ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരൊക്കെ ശ്രമിക്കുന്നത് കാരണം എൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കുക അതുപോലെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന് അവരെന്നെയാണ് എന്നെ സഹായിക്കുന്നെ അപ്പോൾ അവര് തന്നെയാണ് എന്താ പറയുക എൻ്റെ ശക്തി പിന്നെ എൻ്റെ കൂട്ടുകാരും എന്താ പറയുക അങ്ങനെ തന്നെയാണ് അവരും എന്താ പറയുക അവരൊക്കെ കൂടെ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച് എൻ്റെ കാര്യങ്ങളിലൊക്കെ അവര് നല്ല രീതിൽ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അവരും ഇടപെട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നകൊണ്ട് എൻ്റെ ശക്തിയായിട്ട് ഞാൻ അവരെ തന്നെയാണ് കാണുന്നത് പിന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തതിൽ പകുതി തീരുമാനങ്ങളും എന്താ പറയുക ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ മിസ്സ്ടേക്കുകളാണ് എൻ്റെ ബലഹീനതയായിട്ട് എനിക്ക് തോന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബലഹീനതയായാലും ശക്തിയായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്